അടൽ അമൃത് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പെൻഷൻ ആരോഗ്യം ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യം ഉറപ്പ് വരുത്തുന്ന ഒരു പദ്ധതിയാണ് അടൽ അമൃത് അഭിയാൻ ചികിത്സ ചികിത്സയുടെ ചെലവുകൾ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതാക്കി മാറ്റാനും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടൽ അമൃത് യോജന വളരെ സഹായകമാവുന്ന ഒരു കാര്യമാണ് ആരോഗ്യ ഇൻഷൂർ അതൊരു ഇതൊരു ഇത് ഒരുതരം ആരോഗ്യ ഇൻഷൂറ് ആണ് താഴ്ന്ന വരുമാനക്കാർ അത് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രധാനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് കാരണം ആസാം സർക്കാർ ആരംഭിച്ച ഒരു ആരംഭിച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് അടൽ അടൽ അമൃത് അഭിയാൻ യോജന ഏറ്റവും ദുർബലരായ നിവാസികളുടെ ആരോഗ്യ ചിലവുകൾ സർക്കാർ വഹിക്കാൻ വേണ്ടിയിട്ട് അസം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാാണിത് എല്ലാ വീടുകളിലും പിന്നെ അമൃത് മിഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ജലസേചനവും ജല വിതരണവും മലിനജലത്തിൻ്റെ മലിന ജലം ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ അടൽ അമൃത് യോജന